ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എട്ടു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് മൂന്നുലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അമ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ്